ഹലോ ആ ഞാൻ ഒരു പുതിയ സിമ്മ് എടുക്കാനായിരുന്നു നിങ്ങളുടെ കസ്റ്റമർ അല്ല പുതിയ ഒരു സിമ്മ് എടുക്കണം അതിന് വേണ്ടിയിട്ടാണ് വിളിച്ചത് ആ ഓക്കെ ആ അപ്പോൾ ഏതൊക്കെ ഫോർ ജി ത്രീ ജി ഇതല്ലേ ഫൈവ് ജി ഉണ്ട് ഇ ഇല്ലല്ലേ ഓക്കേ അപ്പോൾ പോർട്ടിംഗ് ഓഫറകൾ എന്തൊക്കെയാണ് ഉള്ളത്

രണ്ട് ജി ബി നൂറ് രൂപയല്ലേ ഓ ഇപ്പം എന്തായാലും പോർട്ടിംങ് വേണ്ട അതാണ് ന്യൂ സിമ്മ് മതി നമുക്കായിട്ട് അപ്പം അതിൻ്റെ പ്രൊസ അതിൻ്റെ പ്രൊസസ്സകൾ എന്തൊക്കെയാണ്

ആധർ കാർഡ് ഫോട്ടോസല്ലേ ഓക്കെ അപ്പോൾ അതിന്റെ പ്ലാനുകളൊന്ന് പറയാമോ അങ്ങനല്ല സിമ്മിൻ്റെ റീ റീചാർജ് പ്ലാനുകൾ ഒന്ന് ഡീറ്റയിലായി പറയോ ആ ഓക്കേ ഈ പോസ്റ്റ് ഉണ്ടാകുമോ പോസ്റ്റ് പ്ലാനിങ് അവൈലബളല്ല അല്ലേ ഓക്കേ കോളിംഗും കോളിംഗ നെറ്റത് മതി

ആ ആ ആ ഓ നമ്മൾ സിമ്മ് ആക്ടിവിറ്റ് ചെയ്യാൻ എത്ര ടൈമെ എടുക്കും അത്ര ആവൂള്ളല്ലേ ഓക്കെ അപ്പം അപ്പം ഇനി എന്താ ചെയ്യേണ്ടത് നമ്മൾ അടുത്തുള്ള ഔട്ട്ലെറ്റക്ക് പോയാൽ മതിയോ ആ ആ ആ ആ ആ ഏ ഇല്ല ജീയോതി ഇപ്പം അത് ഇവിടെ റേഞ്ചുള്ളത് ജീയോണ് അപ്പോൾ ഒരു വർഷത്തേക്ക് ഡെയിലി വൺ ജി ബി അല്ലേ ആ ഓക്കെ ഓക്കെ അവിടെ ഔട്ടലെറ്റി പോയാൽ ഓക്കെ താങ്ക് യൂ താങ്ക് യൂ